പഴയ കാലത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസോം കാര്യങ്ങളും ഒന്നും അവർ ജസ്റ്റ് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലം അങ്ങനെയായിരുന്നു അതനുസരിച്ച് ഇന്നത്തെ സാഹചര്യം അതല്ല സ്ത്രീകൾ വിദ്യാസമ്പന്നരും അതിനനുസരിച്ചുള്ള രീതിയിൽ ജീവിക്കാൻ പഠിച്ചവരും കാലങ്ങൾ അവരെ പഠിപ്പിച്ചു പക്ഷേ അവർക്ക് സമൂഹത്തിലൊത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇന്നാണേലും ഇപ്പഴാണേലും സ്ത്രീ സമൂഹത്തിൽ രാത്രി കാലങ്ങളിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനോ ഒരു ബസിലാണെലോ ട്രെയിനിലാണെലോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്നുവച്ച് വലിയ സുരക്ഷ സുരക്ഷി സുരക്ഷിതത്വം അവർക്ക് ഉണ്ട് ഉണ്ട് എന്ന് ഗവണ്മെന്റ് പറയോങ്കിലും ഒരു നയന്റി പേഴ്സന്റെജും ഇല്ലന്ന് തന്നെവേണം പറയാൻ ആയിട്ട് അവരെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒത്തിരി തന്നെയാണ് പുരുഷന്മാർ അനുഭവിക്കുന്നതിനെ കാട്ടി കൂടുതലായിട്ട് യാത്രയിൽ അവർ ഒത്തിരി തന്നെ അനുഭവിക്കുന്നുണ്ട് ഈ സ്ത്രീകൾ സ്ത്രീ സമൂഹം അതുപോലെ തന്നെ ജോലി ജോലിയിലാണെന്നു പറഞ്ഞാലും ഇന്നിപ്പോൾ ഒരുമാതിരിപ്പോൾ ഒരുമാതിരി എന്ന പഴയ രീതിലും ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ അവരെല്ലാം മേഖലകളിൽ ജോലികളിൽ ചെന്നെത്തിട്ടുണ്ട് ഉന്നതങ്ങളിൽ താഴെക്കിടെ തൊട്ട് മേക്കട വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ സ്ത്രീകൾക്ക് പ്രാധിനിത്യം കിട്ടിട്ടുണ്ട്